ഹലോ മാനേജർ അല്ലെ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു പണയം വയ്ക്കാൻ ആയിരുന്നു അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഒരു ഒന്നര ലക്ഷം രൂപയൊക്കെ അടുത്ത് വേണമായിരുന്നു ഒരു നാലെകാൽ പവൻ ഉണ്ടാവും ആഹ് ഒരു ഷോപ്പ് ഇടുവാൻ ആയിരുന്നു അപ്പോൾ എത്ര വേണ്ടി വരും അതെയൊ ആഹ് എന്നാൽ ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കാം ആഹ് സ്ഥലം ഉണ്ട് ആഹ് അപ്പോൾ എങ്ങനെയാണ് വന്ന് നോക്കിയിട്ടാണോ സ്ഥലം ഒരു എത്ര ഏകദേശം ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടൊ എത്ര സ്ഥലം ഉണ്ടെന്ന് നമ്മുടെ സ്ഥലം അല്ല അപ്പോൾ

ആഹ് ആഹ് ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വച്ചാൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അല്ലെ സാറിനെ കിട്ടുമായിരിക്കും അല്ലെ